ഈ ടെക്നോളജി കൊണ്ടുള്ള ഹാംഫുൾ സൈഡ് ഇഫക്റ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ബുക്കുകളോ അങ്ങനെ ഒന്നും വായിക്കാറോ ഒന്നുമില്ല എല്ലാവരും ഇങ്ങനെ മൊബൈൽ ഫോൺസിൽ ഗൂഗിളിൽ എന്തെങ്കിലും അടിച്ച് നോക്കും അതിൽ കിട്ടുന്നത് നോക്കിയിട്ട് പോവും അല്ലാതെ വേറെ ലോകവിവരമോ അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല അവർ ബുക്ക് വായിക്കാനോ ന്യൂസ്പേപ്പർ വായിക്കാനോ ഒന്നും തയ്യാറല്ല അപ്പോൾ ഇങ്ങനെ വരുമ്പം അവരുടെ വളർച്ചയെ അത് ബാധിക്കും അവർ ഇങ്ങനെ ബുദ്ധി അങ്ങനെ ഉപയോഗിക്കാതെ വേറൊരു ഒരു ടെക്നോളജിയുടെ ആശ്രയത്തിൽ അവർ ഇങ്ങനെ കണ്ടുപിടിച്ച് പോകുന്നതല്ലാതെ അവർ അവരുടെ ബുദ്ധി പ്രവർത്തിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇപ്പോൾ ഇതുവഴി ഇങ്ങനെ നോക്കുമ്പോൾ അവരുടെ ബുദ്ധിവളർച്ചയെ ഒരുപാട് ബാധിക്കും പിന്നെ ഒരുപാട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണിന് അത് ദോഷകരമാണ് ഒരുപാട് കുട്ടികൾ കുഞ്ഞ് കുട്ടികൾ ഇപ്പോൾ കണ്ണാടി ഒക്കെ വെച്ച് നടക്കുന്നുണ്ട് അത് അങ്ങനെയൊന്നും വരാൻ പാടില്ല പിന്നെ ഈ ടെക്നോളജി എന്ന് പറയുമ്പം എല്ലാത്തിനും അതിൻറേതായ ഒരു ലിമിറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാം അത്യാവശ്യം ഉപയോഗിക്കാം അതിന് തെറ്റൊന്നും ഇല്ല പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ എന്ത് ഉപയോഗിച്ചാലും അത് ദോഷകരം തന്നെയാണ് ഇപ്പോൾ ഫോൺ ആയാലും എല്ലാത്തിനും റേഡിയേഷനും കാര്യങ്ങളും ഉണ്ട് അപ്പം ഈ കുട്ടികൾ ഇത് ഈ ഫോണും ഒക്കെ രാത്രി ഒരുപാട് നേരം ഇരുന്ന് കാണുക അവരുടെ തലയുടെ അടുത്ത് വെച്ച് കിടക്കുക അതൊക്കെ വളരെ ദോഷകരമായ കാര്യങ്ങളാണ് ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അവർക്ക് ബുദ്ധി വളർച്ചയിൽ വരും അവരുടെ ശാരീരികമായ വളർച്ചകളിലും ഇത് ബാധിക്കാറുണ്ട് ഇപ്പോൾ തന്നെ കുട്ടികൾ സംസാരിക്കാൻ വൈകുന്നുണ്ട് ഒരു വയസ്സിലൊക്കെ സം ഏകദേശം ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞ് തുടങ്ങിയിട്ട് കുട്ടികൾ മൂന്ന് നാല് വയസ്സായാലും സംസാരിക്കാത്ത അവസ്ഥയിൽ ഇപ്പോൾ പോയിട്ടുണ്ട് അത് കാരണം അവർ ഇങ്ങനെ ഫോണിലും നോക്കി ഇരിക്കുന്നു ഒരു സംസാരവും വരുന്നില്ല എന്നാവുമ്പം അവരുടെ സംസാരത്തിനെ അത് ബാധിക്കുന്നു ഇപ്പം കുഞ്ഞ് കുട്ടികൾ സ്പീച്ച് തെറാപ്പിക്കും കാര്യങ്ങളിനും ഒക്കെ പോകുന്നുണ്ട് പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ കുട്ടികളോട് സംസാരിച്ച് ഫോൺ ഒന്നും കൊടുക്കാതെ തന്നെ ഇതൊക്കെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ